ഇന്നത്തെ കാലത്ത് മലയാള ഭാഷ സംസാരിക്കുന്നവർ നല്ലപോലെ ഭാഷ വ്യത്യാസമുള്ള ഒരു ഇതാണ് മലയാള ഭാഷ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പത്തനംതിട്ടക്കാരൻ ഒരു ഭാഷ സംസാരിക്കുന്നു തിരുവനന്തപുരംകാർ ഒരു ഭാഷ സംസാരിക്കുന്നു പല പല ലാംഗ്വേജ് ആണ് തൃശ്ശൂർ വേറൊരു ലാംഗ്വേജ് ഭാഷ മലയാള ഭാഷയാണ് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് സ്ലാങ് വ്യത്യാസമുണ്ട് പിന്നെ നമ്മുടെ കുട്ടികളെയാണേൽ തന്നെ ഇപ്പം എല്ലാവർക്കും പൊതുവേ ഇപ്പോൾ നമുക്ക് പറഞ്ഞാൽ തന്നെ മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പം ഈ വന്നിരിക്കുന്നത് ഇപ്പം പിള്ളേർക്കാണെങ്കിലും വല്ല ഷോ പറയുന്നത് മാത്രമല്ല ഷോ ഷോ പറയുന്നവരുമുണ്ട് എല്ലാത്തവരുമുണ്ട് കുട്ടികൾക്കാണെലും മലയാളം എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷാണ് കൂടുതലും പരിജ്ഞാനം ഉള്ളവരെ അങ്ങനെ പറയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പിന്നെ നമ്മുടെ മലയാളഭാഷ ഏറ്റോം കൂടുതൽ സ്നേഹിക്ക സ്നേഹിക്കപ്പെടണം സ്നേഹിക്കുകയും വേണം മലയാള ഭാഷയാണ് മാതൃഭാഷയല്ലേ മലയാളം നമ്മുടെ എല്ലാവരുടെയും മാതൃഭാഷയല്ലേ മലയാളം അപ്പോൾ അതിലൊരുപാട് നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുവാനും ചിന്തിക്കുവാനും ഉണ്ട് ഇന്നത്തെ കാലത്ത് മലയാളഭാഷ സംസാരിക്കുന്നവർ നേരിടുന്ന വെല്ലുവിളികളെന്നു പറഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമായ ഇതിലൂടെയാണ് മലയാള ഭാഷ ഉള്ളത് സ്ലാങ് വ്യത്യാസമുണ്ട് സംസാരിക്കുമ്പോൾ ഓരോ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരുപാട് വ്യത്യസ്ത ഇതിലാണ് മലയാള ഭാഷ